വായന കൊച്ചുകുട്ടികളിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ മാതാപിതാക്കൻമാരായ നമ്മള് തന്നെ അതിനെപ്പറ്റി വായിച്ച് അറിവ് നേടുക അതിനുശേഷം ആദ്യം കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് കൊടുത്ത് മാ അവർക്ക് മനസ്സിലാകുന്ന രീതിയലവരെ ആക്ഷൻ വഴി എല്ലാം കാണിച്ചു കൊടുത്തവർക്ക് മനസ്സിലാകുന്ന രീതിയിലവരെ നമ്മളിതില് ഈ വായനിലേക്കവരെ വളർത്തിക്കൊണ്ടുവരണം വന്നതിന് ശേഷം അവർക്ക് പിന്നെ കഥാ പുസ്തകം വായിക്കാൻ തുടങ്ങിക്കഴിയുമ്പഴ്ത്തേന് ചെറിയ ചെറിയ കൂടുതൽ കൂടുതൽ പടങ്ങളുള്ള പുസ്തകങ്ങളും കാര്യങ്ങളുമൊക്കെ മേടിച്ച് കൊടുക്കുക അതുപോലെ തന്നെ എഴുതത്തക്ക രീതിയിലുള്ള പ പടങ്ങളും എഴുത്തുമൊക്കെ ആയിട്ടുള്ള പുസ്തകങ്ങള് മേടിച്ച് കൊടുക്കുക പിന്നെ പയ്യെ പയ്യെ പയ്യെ അതുങ്ങള് വാർത്തകളും പത്രങ്ങളുമൊക്കെ ചെറിയ ചെറിയ രീതിയില് അവരെ വായിപ്പിച്ച് വായിപ്പിക്കുകയും പിന്നെ ഒക്കെ ചെയ്യുക ആദ്യമേ നന്നായിട്ടവർക്ക് വായിക്കാനുമൊക്കെ ഈ ഒരു ഈ ഒരു ഇതുകൊണ്ട് അവർക്ക് സാധിക്കും പിന്നെ അവരെ പിന്നെയും കൂടുതലങ്ങോട്ട് പോയിതാക്കാതെ അവരെ അവരുടെ മനസ്സിനിണങ്ങിയ രീതിയില് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കഥകളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊടുക്കുക പറഞ്ഞ് കൊടുത്തതിനുശേഷം അവർക്ക് പിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയില് പിന്നെ പടങ്ങള് വരച്ചുകൊടുക്കുകയും പിന്നെ വായിപ്പിക്കാനായിട്ട് ഓരോരോ അക്ഷരങ്ങളവർക്ക് മനസ്സിലാകാത്ത അക്ഷരങ്ങളവർക്ക് പറഞ്ഞ് കൊടുക്കുകയും പിന്നെ ഓരോ ആൾക്കാരുടെ പേരുകളും ഒക്കെ പറഞ്ഞുകൊടുത്തവരെ വായനയിലേക്കും പിന്നെ കൊണ്ടുവരിക പിന്നെ അവർക്ക് അവരുടേതായ പാഠപുസ്തകങ്ങളുമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ കൊണ്ട് കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാതെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ കൊണ്ട് വായിപ്പിച്ചെടുക്കുക പിന്നെന്തുവാ പിന്നെ മുന്നോ സ്ഥിരമായിട്ട് അങ്ങ് ഇരുന്നീ വായിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യാതെ കുറച്ചവരെ കളിയിലേക്കും കാര്യങ്ങളിലേക്കും കളിയിലേക്കുമൊക്കെ നടത്തിയിട്ട് പിന്നെ പയ്യെ കുറച്ചു നേരം അവരെ ഇരുത്തി വായിപ്പിക്കുക അപ്പോള് കൂടുതല് അവർക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് വരത്തക്ക രീതിയില് അവരെ മുന്നോട്ട് നയിക്കുക അതിനുവേണ്ടി നമ്മള് കുറേ അറിവ് അറിവ് സമ്പാദിക്കാദ്യം അതിന് ശേഷമേ അവരെ ആ രീതിയിലേക്കവരെ കൊണ്ടുവരിക